വെള്ളത്തില് മുങ്ങി മരിക്കാന് പോവുന്ന ഒരാളെ രക്ഷിച്ച ഒരു സംഭവം എനിക്കുണ്ട് ഒരു കുട്ടി വെള്ളത്തില് പെട്ടെന്ന് തെറിച്ചുവീഴുകയും ആ കുട്ടിയെ വെള്ളത്തിലേക്കു താഴ്ന്നുപോകുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായപ്പോള് ഞാന് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി ആ കുട്ടിയെ നീന്തി രക്ഷപ്പെടുത്തിയ ആ ഒരു സംഭവം എന്റെ ഓര്മ്മയിലുണ്ട് അത് ഇന്ന് ആ കുട്ടി വലുതാ വളർന്ന് വലുതായി ഒരു വലിയ യുവാവായി തീര്ന്നിട്ടുണ്ട്